സമൂഹത്തിൽ എല്ലാ കുട്ടികൾക്കും തുല്യ വിദ്യാഭ്യാസ അവസരങ്ങൾ ഉറപ്പാക്കുക എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നം കാണുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതിനാദ്യം വേണ്ടത് എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളാനുള്ള അവർകൊക്കെ

ഇപ്പ നിലവിൽ നമ്മുടെ ജില്ലകളൊക്കെ നേരിടുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അത്രയും കുട്ടികളുടെ എണ്ണത്തിന് അനുസരിച്ചുള്ള സീറ്റുകൾ ഇപ്പം നിലവിൽ ഇല്ല ഇപ്പം നമുക്ക് അറിയാം നിലവിൽ എസ് എസ് എൽ സി കഴിഞ്ഞു ഇന്നലെ ആയിരുന്നു റിസൾട്ട് വന്നിരുന്നത് അതിൽ എത്രയോ കുട്ടികളെ എസ് എൽ സി പക്ഷേ ഇവർക്ക് എല്ലാവർക്കും സീറ്റ് കൊടുക്കാമെന്ന് പറയുന്നത് ഗവൺമെൻ്റിന് ഒരിക്കലും പോസിബിൾ അല്ല കാരണം എത്രയോ സീറ്റുകളുടെ കുറവുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾ പിന്നെ എട്ട് പെർസെൻറ്റേജ് ഇങ്ങനെ വന്ന കുട്ടികൾ അങ്ങനെ ആയിരിക്കും സീറ്റുകൾ വരിക അപ്പോൾ സ്വാഭാവികമായിട്ടും പലവർക്കും പൈസ കൊടുത്തിട്ട് സ്വന്തമായിട്ട് ക്യാഷ് എടുത്തിട്ട് പഠിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാവും അപ്പ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വച്ചാൽ അതിനുള്ള സൗകര്യങ്ങൾ കൂട്ടുക എന്നുള്ളതാണ് കാരണം പോപ്പുലേഷൻ ഒരിക്കലും കുറയില്ല വളർന്നു കൊണ്ടേ ഇരിക്കും അപ്പം അതിന് അനുസരിച്ചുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് ഫസ്റ്റായിട്ട് കുറേ എഡ്യക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗവൺമെൻറിൻ്റെ കീഴിൽ ഗവൺമെൻ്റ് തന്നെ ഇനിഷിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എയ്ഡ ആയിട്ടാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി എടുക്കണം എന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാസ്സായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും നമുക്ക് എന്തു പറ്റും ഈ പ്ലസ് വണ്ണിലൊക്കെ സീറ്റ് കൊടുക്കാൻ പറ്റും പ്ലസ് വണ്ണിൽ മാത്രമല്ല ഏത് ക്ലാസിൻ്റെ അവസ്ഥയല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ എല്ലാരും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം അതാണ് ആദ്യമായിട്ട് വേണ്ടത് എന്നുള്ളതാണ് പിന്നെ തുല്യ വിദ്യാഭ്യാസ അവസരങ്ങൾ ഉണ്ടാക്കുക എന്ന പറയുമ്പോൾ നമ്മൾ എല്ലാവർക്കും ഒരുപോലെ സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് റിസോഴ്സസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള റിസോഴ്സ് അവർക്ക് അവരുടെ വിഭവശേഷി വികസിപ്പിക്കാനുള്ള സ്രോതസ്സകൾ അതിനുള്ള മാർഗ്ഗങ്ങൾ അത് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഓപ്പണാക്കി കൊടുക്കുക പിന്നെ അത് കുട്ടികളുടെ കൈയിലാണ് അവർ അതെങ്ങനെ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ടീച്ചേഴ്സും മാനേജ്മെൻ്റൊക്കെ ചെയ്യേണ്ടതെന്ന് വച്ചു കഴിഞ്ഞാൽ മാക്സിമം ഓപ്പർച്യുണിറ്റീസ് മാക്സിമം ചാൻസസ് ക്രിയേറ്റ് ചെയ്തു കൊടുക്കുക ആ ചാൻസസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു ഇറ്റ്സ് അപ്പ് റ്റൗ സ്റ്റുഡൻസ് അത് സ്റ്റുഡൻസാണ് ചൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മാനേജ്മെൻറും ഗവൺമെൻ്റായാലും എല്ലാവാരും ശ്രദ്ധിക്കേണ്ടത് ആദ്യമായിട്ട് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക എല്ലാവർക്കും ഒരുപോലെ ചാൻസ തുറന്നു കൊടുക്കുക അല്ലാതെ ഒരു ഡിസ്ക്രിമിനേറ്റീവ് മെൻറ്റാലിറ്റിയോടു കൂടി ഒരു വിവേചന ബുദ്ധിയോട് കൂടി ഒരിക്കലും നമ്മൾ സ്റ്റുഡൻസിനെ കാണാൻ പാടില്ല അ ഇന്നത്തെ കാലത്ത് വല്ലരെ വലിയ പ്രശ്നമാണ് അതായത് അറ്റൻഷൻ കിട്ടാതെ പല കുട്ടികളും ഒരു ലക്ഷ്യത്തിലെത്താതെ പോകുന്നുണ്ട് വളരെ ടാലൻ്റുള്ള കാലിബറുള്ള കുട്ടികൾ തന്നെ എവിടെ എത്താതെ പോകുന്നുണ്ട് കാരണം ടീച്ചേഴ്സിലെ ടീച്ചേഴ്സ് അറ്റൻഷൻ നൽകിയില്ല എന്നുള്ള പരാതി ഒറ്റ പരാതി കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ആ ഒരു പരാതിയൊക്കെ പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലത്തെ അവസരങ്ങൾ നമുക്ക് ഉറപ്പാക്കാൻ പറ്റും അത് നല്ല യൂസ്ഫുൾ ആവും